എൻ്റെ ഹോബികൾ എന്ന് പറഞ്ഞ് എനിക്ക് ആദ്യം ഏറ്റവും ഇഷ്ടം കുക്കിംഗാണ് കാരണം പല തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം പാചക പുസ്തകങ്ങളിൽ അതുപോലെ ഇൻ്റർനെറ്റിലൊക്കെ നോക്കി പല വ്യത്യസ്ത തരത്തിലുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് ഒരുപാട് താല്പര്യമുള്ള ഒരാളാണ് കൂടുതൽ എനിക്ക് ഈ മധുരപലഹാരങ്ങൾ ലഡു ജിലേബി കേക്ക് ഡെസേർട്സ് ഗുലാബ് ജാമുൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പിന്നെ പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമാണ് ക്രൈം ത്രില്ലർ മൂവീസ് കാണാൻ ഇഷ്ടമാണ് മലയാള സിനിമകൾ മാത്രമേ ഞാൻ കാണാറുള്ളൂ കാരണം എനിക്ക് തമിഴ് കണ്ടാല് മനസ്സിലാവില്ല മലയാളം ഞാൻ കൂടുതൽ കാണാറ് പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ യാത്രകൾ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കൂടുതൽ എനിക്ക് ഈ കുന്നുകളും മലകളും അങ്ങനെ പ്രകൃതി ഭംഗി കൂടുതലുള്ള സ്ഥലങ്ങൾ പോകാൻ അല്ലാതെ എനിക്ക് ഈ മെട്രോ പോളിറ്റേൺ സിറ്റി പോലുള്ള സ്ഥലങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല കൂടുതൽ മലനിരകളും പുഴകളും കുന്നുകളും ഒക്കെയുള്ള പ്രകൃതി രമണീയമായ പച്ചപ്പ് നിറഞ്ഞ ഗ്രാമങ്ങൾ അത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഞങ്ങൾ അങ്ങനെ ഇടക്ക് യാത്രകളൊക്കെ പോകാറുണ്ട് പിന്നെ പാട്ടുകൾ എനിക്ക് ചിത്ര ചേച്ചിയുടെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കെ എസ് ചിത്രയുടെ പാട്ടു കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പാചകം തന്നെയാണ് എപ്പോഴും എൻ്റെ പാഷൻ പല തരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുക അതുപോലെ ചിക്കൻകറി ചിക്കൻ കറിയൊക്കെ പല രീതിയിൽ വയ്ക്കുക അതൊക്കെയാണ് എൻ്റെ ഹോബി